നമ്മളിപ്പം ചെടി നടുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും പൂക്കള് വിത്തുകളൊക്കെ നട്ടിട്ടായിരിക്കും അത് നമ്മള് ചെടികളെക്കെ ഉണ്ടാക്കുക നട്ട് പിടിപ്പിക്കുക നമ്മളെന്തെങ്കിലും നല്ല നനവുള്ള മണ്ണിലൊക്കെ നമ്മള് പിന്നെ ചെടീൻ്റെ അതായത് ഈ ഒരു ചെടീൻ്റെ ഒരു വിത്തുണ്ടാകും ആ വിത്ത് നമ്മള് ഈ നനഞ്ഞ മണ്ണില് ചെറുതായിട്ടൊന്ന് കിളച്ച് നന്നായും പിന്നെ നല്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ആക്കി ഈ മണ്ണിലേക്ക് നമ്മളീ വിത്തിടുക വിത്തിട്ട് കഴിയുമ്പം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ ഓരോ മുള വരും പിന്നെ അതൊരു ചെറുതായിട്ട് പൊന്തി വരും പിന്നതൊരു ചെറിയൊരു ചെടിയാവും പിന്നത് ഹതങ്ങനെ വരും ഓരോ ദിവസം നോക്കുമ്പൊഴും ഓരോ മാറ്റങ്ങളായിരിക്കാരം ആ ചേദിക്കുണ്ടാകുക പിന്നെ ആണ് അത് വലിയതായി വലിയതായി അതിലൊരു കായുണ്ടാകും ആ കായ് ആയിരിക്കും ഈ പൂവായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ ചെടിയെ വിത്തുകളിൽ നിന്നും ചെടികളിൽ നിന്നും വെട്ടിയെടുത്ത കഷ്ണങ്ങളിൽ നിന്നും പ്രജജനം ചെയ്യാന് ഞാന് ശ്രമിച്ച് നോക്കീട്ടക്കേണ്ട് അത് പരാജയ പെട്ടിട്ടൊള്ളൂ പക്ഷെ നല്ലതായിട്ട് വന്നിട്ട് ഉണ്ട് അതുകൊണ്ട് പറയുകയാണ് ഈ ചെടികളൊക്കെ വെട്ടിയെടുത്ത് കഷ്ണങ്ങളാക്കീട്ട് പ്രജജനം ചെയ്യാന് നല്ലത് തന്നെയാണ്